എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് മക്കൾക്കും ഹസ്ബൻഡിനും ഇഷ്ടമാണ് ഹസ്ബൻഡിൻ്റെ അമ്മ ഉണ്ട് ഇവിടെ പുള്ളിക്കാരിക്കും ഇഷ്ടമാണ് അമ്മ അമ്മയായിരുന്നു ഞാൻ വന്ന കാലഘട്ടത്തിലൊക്കെ ഇതാക്കിതരുന്നത് കുറച്ച് പ്രായം ഒക്കെ ആയിട്ടുള്ള അവരാണ് എന്നാലും ഇടക്ക് ഞങ്ങളോട് പറയും അതില് കുറച്ച് പിന്നെ പുഴു ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മാമ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോളൊക്കെ പുഴു ഒക്കെ കണ്ടിട്ടുണ്ടെങ്കില് കാണിച്ച് തരും പുഴുവുണ്ട് അങ്ങനെയാ എങ്ങനെയാ എന്ന് പറഞ്ഞിട്ട് പിന്നെ മക്കളും കാടൊക്കെ ഉണ്ടെങ്കിൽ പറിക്കും അവര് നോക്കും അവർക്ക് എവിടുന്നെങ്കിലും പൂ ചെടി കണ്ട് ഇഷ്ടപെട്ടിട്ടുണ്ടെങ്കില് നേരെ കൊമ്പ് കൊണ്ട് വന്നിട്ട് അമ്മ നട്ടോളാൻ പറയും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ചട്ടിയിൽ ചെടികളൊക്കെ കണ്ടിട്ടുണ്ടേൽ വാങ്ങിച്ചോണ്ട് വരും നല്ല ചട്ടികള് നല്ല നല്ല ചട്ടികള് ഹസ്ബൻഡ് പോകും ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യുമ്പോൾ കിട്ടുവാണെങ്കില് ആൾ കൊണ്ട് തരാറുണ്ട് പിന്നെ എവിടെങ്കിലും ഒക്കെ ടൂർ പോകുമ്പോൾ അവിടുത്തെ വെറൈറ്റി ചെടികൾ കണ്ടിട്ടുണ്ടേൽ അവിടുന്ന് വാങ്ങി വണ്ടിയിൽ വെച്ച് വീട്ടിൽ കൊണ്ട് തരാറുണ്ട്